ഹലോ സൂര്യ ഹോട്ടലല്ലേ ആ ഓക്കേ എൻ്റെ പേര് മഞ്ജു ഞാൻ കപ്രശ്ശേരീയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പേയ്മെന്റെല്ലാം നടത്തിയതാണ് വിത്ത് ഡെലിവറി ചാർജ് വരെ നൽകിയതാണ് ഇപ്പം ഡെലിവറി ബോയ് വന്ന് ഫുഡെനിക്ക് തന്നിട്ട് പോയി അയാൾ പോയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അന്യായ സ്മെല്ല് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോയിട്ടത് ഓപ്പൺ ചെയ്തിട്ട് റൂമിലെങ്ങും നിൽക്കാൻ നിവർത്തിയില്ല ഇനി ഈ സമയത്ത് ഞാനെവിടെ പോയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഞാന് ഓർഡർ ചെയ്തത് ഇത് എനിക്ക് വേറൊരു ഫുഡ് നിങ്ങള് ഒന്ന് കൂടെ ഡെലിവറി ചെയ്ത് തരിക അല്ലങ്കിൽ റീ പേയ്മെന്റ് ചെയ്ത് തരിക അല്ലെങ്കിൽ ഞാനിത് കംപ്ലൈയ്ന്റ് ചെയ്യും കംപ്ലൈന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയേലെന്തെങ്കിലും വയറലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിന് തന്നെയാണ് പേര് മോശം വരിക ഇല്ല ഇല്ല നിങ്ങളൊരു എക്സ്ക്യൂസ് ഒന്നും പറയണ്ട ഒന്നെങ്കിൽ റീപേയ്മെന്റ്

ഇല്ല സാറങ്ങനെയല്ല നമ്മള് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നേരമില്ലാത്ത കൊണ്ടാണല്ലോ നമ്മള് പെട്ടന്ന് കഴിക്കുന്നതിനായിട്ടുള്ള ഓർഡർ ചെയ്ത് സാധനം കൊണ്ട് വരുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഉള്ള ഫുഡ് കിട്ടുമ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ ഓക്കേ സാർ എന്നാൽ എനിക്ക് ആ ശരി എന്നാൽ പത്ത് മിനിറ്റിൽ എത്തിക്കാമെങ്കിൽ ഓക്കേ എങ്കിൽ എനിക്ക് കുഴപ്പം ഉണ്ടാകില്ല നല്ല ഫുഡായിരിക്കണം ഓക്കേ